സാങ്കേതിക വിദ്യയെ കുറിച്ച് പഠിക്കുന്ന അതിൻ്റെ ഉപയോഗവും ഒക്കെ എല്ലാവർക്കും പഠിക്കാൻ അടിസ്ഥാനമാണെന്ന് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രയോജനം പണ്ട് ടെലഫോ ലാൻഡ് ഫോൺകളായിരുന്നല്ലോ സംസാരിച്ചിരുന്നത് പിന്നീടെല്ലാം മൊബൈല് മൊബൈലായപ്പം ചെറിയ മൊബൈൽന് അകത്തായിരുന്നു എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് വലിയ ഫോണുകളായി ആ ഫോണ് ആദ്യമൊക്കെ എനിക്ക് അതിൽ വിഷമമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യുന്നേന്നുള്ള ഇതായിരുന്നു പിന്നെ പിന്നെ അത് പഠിച്ച് മനസ്സിലായി അപ്പം എല്ലാം ഈ ഇതിൽ എല്ലാവർക്കുമത് പിന്നെ അതാക്കി കൊടുക്കണം എല്ലാവരേം ഇത് പഠിപ്പിക്കണമെന്നാണ് എല്ലാവരുടെയും ഇത് പണ്ടത്തെ കാലത്ത് ടെലഫോണുള്ളപ്പോൾ ടെലഫോണി കൂടി ആയിരുന്നല്ലോ സംസാരം പിന്നീടാണ് മൊബൈൽ ഫോണുകൾ വന്ന് മൊബൈൽ ഫോൺ ആദ്യമൊക്കെ കിട്ടുമ്പോഴൊരു സന്തോഷമായിരുന്നു ഇതെങ്ങനായിരുന്നു ഒന്ന് അറിയേയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൊബൈൽ ഫോൺനകത്തോട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങീത് മൊബൈൽ ഫോൺലൂടെ അത് കഴിഞ്ഞിട്ട് അതെടുത്ത് ഉപയോഗിക്കാനുള്ള അത് എങ്ങനെയാണ് ഇത് ഇതെങ്ങാനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരിതായിരുന്നു ആദ്യം ലാൻഡ് ഫോൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റേ പിന്നെ ഇതായിരുന്നു ഫോണുകൾ ചെറിയ ഫോണുകളായിരുന്നു പിന്നെ പിന്നെ ഇതെല്ലം ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുത്തണം ആദ്യമായിട്ട് ഫോണെടുക്കുമ്പോൾ ലാൻഡ് ഫോണിൽ സംസാരിച്ച് നമുക്ക് പിന്നീടത് പിന്നീട് നമ്മൾ ഇതിൻ്റെ കമ്പ്യൂട്ടർ വഴി ഒക്കെ സംസാരങ്ങൾ തുടങ്ങി സംസാരം കമ്പ്യൂട്ടർ ഇൻറ്റർനെറ്റ് വഴിയൊക്കെയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മുതലാണ് പിന്നീടാണ് മൊ മൊബൈൽ ഫോൺനകത്തുകൂടി ഇപ്പോൾ വാട്സപ്പിനകത്തും ബൊട്ടീമിനകത്തും ഒക്കെ സംസാരിക്കാനുള്ള ഒരിത് ആദ്യമൊക്കെ എടുക്കുമ്പോൾ ബോട്ടിമൊന്നും എടുക്കാനും അറിയില്ലായിരുന്നു വാട്സപ്പും എടുക്കാൻ അറിയത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാമെല്ലാം പഠിച്ച് ഇതായി നമുക്കിപ്പോൾ ഏത് ഇത് വന്നാലും എടുക്കാൻ ഫോൺനകത്തും കൂടുതൽ പഠിക്കാനുള്ള അപ്പോൾ ആ ഫോൺനകത്തെ പഠിക്കാനായിട്ട് എല്ലാവർക്കും സാങ്കേതിക വിദ്യകൾ പഠിച്ച് കൊടുക്കാൻ പഠിപ്പിക്കണമെന്നുള്ള ഇതാണ് എല്ലാവർക്കും അതിൻ്റെ പ്രയോഗിക്കാനും ഇപ്പഴേ പിള്ളേർ പിള്ളേർക്കെക്കാണേലും ഇപ്പോഴെല്ലാ കൊച്ചു പിള്ളേർക്കും ആദ്യമേ ഇതെല്ലാം എടുക്കാനാറിയാം അവരെ പഠിപ്പിച്ച്തയാണ് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാനും എന്താ എല്ലാ ഇപ്പോൾ ഇതു വഴിയാണല്ലോ എല്ലാവരും ഫോണിൽ കൂടിയല്ലേ സംസാരിക്കുന്നത് അതിൻ്റെ എല്ലാവരും ഇപ്പോൾ ഫോണിൽ കൂടിയാണ് അങ്ങോട്ടു മിങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടത്തുന്നത് എല്ലാവരും ഫോണിൽ കൂടി സംസാരിക്കാനും ഇപ്പോൾ ഇപ്പോല്ലാം കണ്ടുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെയല്ലേ ഏത് രാജ്യത്തിരുന്നാലും എപ്പോഴും കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും കുറെ ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിൽ അവരെ കൂടെ ഇത് പഠിപ്പിച്ചു കൊടുക്കുവാനും എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്താനും പഠിപ്പിക്കുന്നതും ഒക്കെ നല്ല കാര്യമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് എല്ലാം യൂട്യൂബ്സും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ പ്രയോഗങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഇതും അവരെ പഠിപ്പിക്കാനും എല്ലാം സഹായിക്കണം സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പഠിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാ കാര്യവും ഇതാക്കി കൊടുക്കാനും ഇത് അറിയാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഇതും കൊടുക്കണം പണ്ടൊക്കെ ഫോൺ ഫോൺന്ന് പറയുന്നത് പണ്ടൊക്കെ ഫോണീ കൂടി വിളിച്ച് പണ്ടൊക്കെ ടെലഫോൺനകത്തേക്ക് ദൂരെ ആയിരിക്കുമ്പോൾ ഇത് ചെയ്യണം പണ്ട് ബുക്ക് ചെയ്തൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്